ഹലോ ആ ഊബർ ഓട്ടോ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് എൻ്റെ വീട് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ മേല്കര എന്ന് പറയുന്ന സ്ഥലത്താണ് മേല്കര എന്ന സ്ഥലത്താണ് വീട് അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ചെറുകോൽപ്പുഴ പാലത്തിന് അടുത്തായിട്ട് വരും ചെറുകോൽപ്പുഴ പാലത്തിൻ്റെ അടുത്താണ് ഡ്രൈവറ് ഉടനെ എത്തുമോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്